കോഡിനേറ്റർ എൻ്റടുത്ത് പറഞ്ഞത് വൃദ്ധസദനത്തിനെ കുറിച്ച് സംസാരിക്കാനാണ് ഈ വൃദ്ധസദനത്തിനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം നമ്മളുടെ ജനനം മുതൽ നമ്മൾ മരണംവരെ നമ്മൾ ഒരേ കണക്ക് പരിപാലിക്കുകയും എടുക്കുകയും ചെയ്യേണ്ട നമ്മളുടെ മാതാപിതാക്കളെ ഒരു സ്ഥലത്ത് അവരെ ഉപേക്ഷിച്ചിട്ട് പോവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കുറ്റകരമായ കാര്യമാണ് നമ്മളെ ഇത്രയും നല്ലതുപോലെ പരിപാലിച്ച് ആഹാരം തന്ന് വളർത്തി ഉടുക്കാൻ നല്ല വസ്ത്രം തന്ന് പഠിക്കാനുള്ള സാഹചര്യം എല്ലാം ഒരുക്കിയിട്ടും ഒരു സിറ്റുവേഷൻ ഒരു സമയം എത്തുമ്പോഴേക്കും അവരെ പോരാതെ തോന്നുകയും അവരെ കൊണ്ട് ആക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ വൃദ്ധസദനം എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് സ്വന്തം അമ്മയെയും അച്ഛനെയും നോക്കാൻ പറ്റാത്തവരെ നാളെ അവരുടെ മക്കളെയും നോക്കത്തില്ല അവരെ കണ്ടായിരിക്കും അവരുടെ മക്കളും പഠിക്കുന്നത് നാളെ ഈ ഒരു സാഹചര്യം അവർക്കുമുണ്ടാകാം നമ്മൾ മാതാപിതാഗുരു ദൈവം എന്നാണ് പഠിക്കുന്നത് അപ്പോള് അതിനനുസരിച്ച് വേണം നമ്മൾ പെരുമാറാൻ നമ്മളുടെ എല്ലാ ഉയർച്ചയിലും താഴ്ചയിലും എല്ലാം കൂടെ നിന്ന മാതാപിതാക്കളെ നമ്മൾക്ക് ഒരു ഇതു വരുന്ന സമയത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു വളരെ തെറ്റായ ഒരു കാര്യമാണെന്നെ ഞാൻ സംസാരിക്കത്തുള്ളൂ അപ്പോള് ഈ വൃദ്ധസദനം ഇല്ലായിരുന്നെങ്കിൽ എന്തുചെയ്തേനായിരുന്ന് പാവപ്പെട്ട അമ്മയെയും അച്ഛനെയും ഇവർ വഴിയിൽ ഉപേക്ഷിക്കുമായിരുന്നോ അപ്പോള് ഇതൊക്കെ ഒരു എന്താണു പറയുക ഒരു തെറ്റായ നടപടിയാണ്